വർഷങ്ങൾ കൊണ്ടു തന്നെ ഇന്ത്യൻ വിനോദ വ്യവസായം പല രീതിയിലാണ് നടക്കാറും കാണാറുള്ളത് രാജ്യത്തെ ഏറ്റവും ജനപ്രിയമായ ചില വിനോദ രൂപങ്ങൾ അതിൽ പലതും കേരളത്തിൽ നിന്ന് തന്നെ ലഭ്യമായതാണ് അവയിൽ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ കാണുവാനും കേൾക്കുവാനും ആസ്വദിക്കുവാനും ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഉണ്ട് പലതരത്തിലുള്ള ഉള്ളടക്കങ്ങളാണ് ആളുകൾക്കിടയിൽ അവരെല്ലാരും വർഷങ്ങൾ കൊണ്ട് തന്നെ വിനോദ വ്യവസായം എങ്ങനെയാണ് വികാസം പ്രഖ്യാപിച്ചത് എന്ന് അവർ തന്നെ സ്ഥിരമായി ജീവിത രീതികൾക്ക് ഒപ്പം പുലർത്താൻ രാജ്യത്തെ ഏറ്റവും ജനപ്രിയ ചില വിനോദ രൂപങ്ങളാണ് ഇന്ത്യയിലെ ആളുകൾക്ക് പലതര സ്ഥലങ്ങളും ഇഷ്ടമാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വിനോദസഞ്ചാരങ്ങളായാലും അവർ ആസ്വദിക്കാറുണ്ട് ഇത് പലപ്പോഴും പല രീതികളിലാണ് ഡാൻസ് മ്യൂസിക് ഡ്രാമ ഫിലിം കൺസേർട്ട്സ് ഗെയിംസ് റേഡിയോ ആൻഡ് ടെലിവിഷൻ എന്നിവയിലും രൂപം കൊള്ളാറുണ്ട്